ഒരുപാട് നല്ലതായി ചെയ്തിട്ടുണ്ട് കാരണം വിദേശത്തെപ്പോലുള്ള ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുകളെ സഹോദരന്മാരെ ഒരുപാട് വർഷത്തേക്ക് കാണാതിരിക്കാനും ഒക്കെ ആകുമ്പോൾ നമുക്ക് വളരെ അധികം വേദന സ്മാർട്ട് ഫോണുകൾ വന്ന സമയത്ത് അവരെ കണ്ട് സംസാരിക്കാനും അവരോട് കൂടുതൽ ഇടപഴകാനും അവരെ നേരിൽ കാണുന്നപോലെ സംസാരിക്കാനും എല്ലാം ഒരു വിരൽത്തുമ്പുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ സ്മാർട് ഫോണുകൾ വന്നത് കൊണ്ട് മെച്ചപ്പെട്ടതാണ് പിന്നെ വീട്ടിൽ ഇരുന്ന് കൊണ്ട്തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും സ്മാർട്ട ഫോണുകൾ വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും സാധിക്കുമായിരുന്നില്ല നമ്മൾക്ക് കൊറോണ പോലുള്ള അസുഖങ്ങൾ വന്നപ്പോൾ പലരെയും നേരിൽ കാണാതെയും കണ്ടത് ഫോണുകൾ വഴിയാണ് ആശയ വിനിമയങ്ങൾ നടത്തിയതും ഫോണുകൾ വഴിയാണ് അവരോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞതും അകലങ്ങൾ കുറച്ചതും ഒക്കെ സ്മാർട്ട് ഫോണുകളുടെ വരവ് വരവോടെയാണ് ഒരുപാട് നല്ലത് സ്മാർട്ട് ഫോണുകൾ ചെയ്തിട്ടുണ്ട് പഠനത്തിലും എല്ലാത്തിലും ഉയർച്ച മാത്രമേ സ്മാർട്ട് ഫോണുകൾ വരുത്തീട്ടുള്ളൂ